ഞാൻ മേസ്തിരിയായിരുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു അതാണ് വിളിച്ചത്

അ ആ ആ ഓക്കേ ഓക്കേ അ ആ ഒ ഓ ഇപ്പോൾ നമുക്കിപ്പോൾ ടൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വൺ സ്ക്വയർ ഫീറ്റൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെത്രയാണ് ഉദ്ദേശിക്കുന്നേ

അ ആ ആ അപ്പോൾ ന അപ്പോൾ നിങ്ങളുടെ താഴത്തെ ഫ്ളോറുമായിട്ട് നമുക്ക് സെയിം ബെ അതായത് സെയിം സ്ക്വയർ ഫീറ്റിൽ തന്നെ പണിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ വീടിൻ്റെ ഒരു പ്രപോഷനെ ഒക്കെ ബാധിക്കും അപ്പോൾ നമുക്ക് ഒന്നൂലേ ചെയ്യാനുള്ളതൊരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആ അതെ അതെ ആ ആ മഴക്കല്ല നമുക്കാദ്യം ബെയ്സ് ബെയ്സ് പരുപാടികളൊക്കെ നമുക്ക് അതു മഴക്കാലം ആയാലും വിഷയമില്ല ബാക്കി ഇൻറ്റീരിയർ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കാ ഒരു മഴയുടെ ഒരു ഭേദഗതി അനുസരിച്ച് നമുക്ക് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം അ അ അ ആ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം ആ ഇപ്പോൾ നമ്മുടെ പുതിയ നമ്മുടെ കമ്പനിയുടെ പുതിയ ഈ പ്ലാനിൽ തന്നെ ഉള്ളതാണ് ഫൗണ്ടേഷനും പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ബ്രിക്ക് ഇടുന്നതും ഒക്കെ പ്ലാനിൽ തന്നെയുള്ളതാണ് വേണേ ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആവിശ്യവൊണ്ടെങ്കിൽ ഈ പ്ലാനിൻ്റെ കൂടെ നമുക്കത് ചേർക്കാം അപ്പോൾ നമുക്കത് വെക്കേണ്ട സ്ഥലം തന്നെ ആ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതു പറയാം അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ആ ആൾക്കാരെ വിട്ട് എടുത്തോളാം ആ ആ ഓക്കേ ഓക്കേ ആ അ ഓ നാലുകെട്ടിൻ്റെ സെൻ്റർ അല്ലേ ആ ഉവ്വ് ആ അപ്പോൾ ഓക്കേ നിങ്ങൾ എനിക്ക് പ്ലാൻ സെൻ്റ് ചെയ്തുവിട്ടാൽ മതി പ്ലാൻ സെൻ്റ് ചെയ്തു വിട്ട് നമ്മൾ അതിൻ്റെ ആ എന്നാ ഞാൻ ആൾക്കാരെ വിട്ടേക്കാം അപ്പം നിങ്ങൾ കറക്റ്റ് അല്ല ഞങ്ങൾ കറക്റ്റ് അതൊന്ന് അളന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ആ ആ

ആ കല്ലിൻ്റെ ആ

ഓക്കേ ഓക്കേ ഇൻ്റർ ലോക്കിങ്ങിനു വലിയ സമയമെടുക്കില്ല ഒരു വൺ ടു ടു ഡേയ്സ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സിംപിളാണ് ഇൻ്റർ ലോക്കിങ്ങൊക്കെ ആ

ഇല്ലില്ല ഇത് ആ അത് അതെന്നു പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത കമ്പനി എന്നൊക്കെ സെലക്ട് ചെയ്താലങ്ങനെ നമ്മുടെയെന്നു പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കമ്പനിയാണ് അപ്പോൾ ഞങ്ങളോ ഓഫർ ചെയ്യുന്നത് അങ്ങനത്തെയാണ്

ആ വിളിച്ചാൽ മതി ഞാൻ അപ്പോൾ നിങ്ങളുടെ പ്ലാനൊന്നെനിക്ക് ഇട്ടു തന്നേക്ക് പിന്നെ മറ്റേ ആ ആ പിന്നെ ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഫോ എവിടെയാണ് വെക്കേണ്ടതെന്നൊരു ഫോട്ടോയും കൂടി ഒന്ന് ഇട്ടാൽ മതിയെ ആ അ ഫൗണ്ടേഷൻ വെക്കേണ്ട സ്ഥലത്തിൻ്റെ ഫോട്ടോയും പിന്നെ ആ വീടിൻ്റെ പ്ലാനും കൂടിയൊന്ന് ഇട്ടു തന്നാൽ മതി അ ആ ഓക്കേ ചേട്ടാ ശരി ശരി